പഴയ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ വിവാഹങ്ങളിൽ വിവാഹാചാരങ്ങളിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പഴയ തലമുറയിൽ പെട്ട് ജനതകൾക്ക് അന്നത്തെ കാലത്ത് സ്ത്രീ ധനം നിർബന്ധമായിരുന്നു സ്ത്രീധനം കൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകൾ നമുക്ക് ഇടയിൽ ഇന്ന് സുലഭമായി കണ്ടു വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീധനം കൊണ്ട് ബുദ്ധിമുട്ടി സ്ത്രീധനം കൊടുക്കാതെ വന്നിരുന്ന വിവാഹം കഴിച്ചു കൊണ്ട് വരുന്ന വീടുകളിൽ അവരുടെ വീട്ടിലുള്ള വീട്ടിലെ അംഗങ്ങളുടെ പീഡനങ്ങൾ ഏൽക്കുകയും അവരിൽ നിന്ന് ശാരീരികമായ മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തിട്ട് വരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതിൽ നിന്നും ഒരുപാട് വ്യത്യാസം വന്നു വിദ്യാഭ്യാസം അതിന് വലിയ ഒരു മുൻഗണനപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോഴത്തെ ഈ തലമുറയിൽപെട്ട പെൺകുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ജോലിയും അത് സംബന്ധിച്ചു സ്ത്രീ തന്നെ ധനം എന്ന എന്നൊരു ആറ്റിറ്റൂഡിൽ എല്ലാ ജന എല്ലാ വിഭാഗത്തിൽപെട്ട ആള്കൾക്കും അതൊരു അത് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് നമ്മുടെ കേരളത്തിൽ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ് എന്നാലും നമ്മളുടെ മലയാളികളുടെ ഒരു മലയാളികളുടെ തന്നെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഇന്നും ഇപ്പോഴും സ്ത്രീധനം നൽകുന്നത് കൊണ്ട് സ്ത്രീധനം കൊടുക്കുകയും മേടിക്കയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ സ്ത്രീധനം കൊടുക്കുന്നത് ഒരു നിർബന്ധമല്ല കാരണം കുട്ടികളെ പഠിപ്പിച്ച് ഒരു ഉന്നത നിലയിലാക്കി അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് പോകുന്നത് കൊണ്ട് അവർക്ക് മുന്നോട്ടുള്ള ജീവിത ജീവിതശൈലിക്കുള്ളത് എത്തിച്ച് കൊടുക്കുന്നത് കൊണ്ട് സ്ത്രീധനത്തിന് മുൻഗണനയില്ല അതുകൊണ്ട് തന്നെ ഇപ്പം സ്ത്രീധനം നൽകുന്നത് വിരളമായിട്ടാണ് കാണുന്നത് പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോ ൾ ഒരാൾക്ക് അവർ കൈവരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവർ എത്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സ്ത്രീധനം നൽകുന്നതല്ല പഴയ കാലത്തിൽ പെട്ട ആളുകൾക്ക് സ്ത്രീധനത്തിൽ തുടർന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും ശാരീരിക പീഡനങ്ങളും മാനസിക പീഡനങ്ങളും അതിൽ അവരുടെ ജീവൻ തന്നെ അപായപ്പെട്ടു പോവുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട് താൻ മൂലം അനുഭവിച്ചവർക്ക് അത് അത് അതിൻ്റെ നൂറിൽ ഒരു എൺപത് ശതമാനത്തോളം ആളുകളും സ്ത്രീധന സ്ത്രീധന പീഡനത്തിന് ഇരയാവുകയും അവർ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ സുരഭിതമായ സാഹചര്യത്തിലാണ് ഇന്ന് സ്ത്രീധനം കേരളത്തിൽ നിർത്തലാക്കി ഇരിക്കുന്നതും പതിവിനും നമ്മൾ നമ്മുടെ സന്തോഷത്തിന് അവർക്ക് ആവശ്യം ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സമ്മാനങ്ങളോ എന്തെന്നായാലും നൽകാവുന്നതാണ്